തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ഉണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇപ്പോൾത്തന്നെ പഠനത്തിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സഹായകമായിട്ട് ഇപ്പോൾത്തന്നെ എല്ലാ സ്കൂളുകളിലുണ്ട് അത് ഏറ്റവും വലിയ ഒരു ഉപകാരം തന്നെയാണ് പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് പ്രത്യേക പദ്ധതികളുണ്ട് കാരണം പെൺകുട്ടികളുടെ ആണുങ്ങൾ കുട്ടികളേക്കാട്ടിയും കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ ഓരോ സ്ഥലത്തും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അറിയാം അറിയാം കുറച്ചു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ ചിലപ്പം പൈസ ഇല്ലാത്തതുകാരണം വീട്ടുകാർ കെട്ടിച്ചുവിടുകയും ബാക്കിയുള്ളവരെ ഇത് വലിയൊരു പിന്നെപ്പിന്നെ വലിയൊരു ജോലിയിലേക്ക് അവരെ കടത്തി കല്യാണം കല്യാണം കഴിച്ചുവിടുകയും പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പെൺകുട്ടികൾക്കും വേറെ പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ആ പൈസ ഉപയോഗിച്ച് അവർക്ക് മുൻപഠനം പഠിക്കാനും ഗുണനിലവാരവുള്ള പഠനങ്ങൾ പഠിക്കാനും ജോലികളിൽ കയറാനും അവർക്ക് പദ്ധതികളുള്ളതുകൊണ്ട് അത് ആൺകുട്ടികൾക്കും അത് രണ്ടും പ്രത്യേകിച്ചുള്ള ജോലി ആയതുകൊണ്ട് പിന്നെ ഓരോ ബേസിലാണ് അവർക്ക് ഓരോ സ്കോളർഷിപ്പ് നൽകുന്നത് അപ്പോൾ ഓരോ ചിലപ്പോൾ ഓരോ കാസ്റ്റും അങ്ങനെ അതൊക്കെ അനുസരിച്ച് ഓരോ സ്കോളർഷിപ്പുകളുണ്ട് പിന്നെ പഠനരീതി അനുസരിച്ച് അവരെ മുന്നേറ്റം അനുസരിച്ച് അത് ഏറ്റവും വലിയൊരു ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോഴത്തെ സ്കൂൾ ഇപ്പോഴത്തെ സാമ്പത്തിക ഇതിൽ ഏറ്റവും വലിയ ഹെൽപ്പ്ഫുള്ളാണ് ഈ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ നൽകുന്നത് പഠന നിലവാരം കൂട്ടുവാനും അവർക്ക് എവിടെപ്പോയി പഠിക്കാനും വിദേശത്ത് പോകണമെങ്കിലും പണ്ടുള്ള ഇതുവച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം പണ്ട് പലർക്ക് സ്കോളർഷിപ്പുകളെന്ന് ചില പലർക്കും കിട്ടാത്തൊരു പഠിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം പലർക്കും പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴൊന്നും വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠിക്കാതെ പലരും ചെറുപ്രായത്തിൽ തന്നെ ജോലിക്കിറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനേ ഇല്ല കാരണം ഇപ്പോൾ സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട് പെൺകുട്ടികൾ ആൺക്കുട്ടികളും എല്ലാം ഉള്ള സ്കോളർഷിപ്പുകളുണ്ട് പ്രത്യേകിച്ചവർക്ക് പഠിക്കാനും മുൻനിരിയിൽ നിന്ന് പഠിക്കാനും സാമ്പത്തിക പ്രതിസന്ധി മാറ്റാനും ഉള്ളൊരു ഏറ്റവും വലിയൊരു ഇതാണ് ചെയ്യേണ്ട ഒരുവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സ്കോളർഷിപ്പുകളെല്ലാം കുട്ടികൾക്കെല്ലാം സഹായമാണ് പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് കാരണം ഒരു പ്രായം കഴിഞ്ഞ് കെട്ടിച്ചുവിടുന്നതുകൊണ്ട് പെൺകുട്ടികളെ പിന്നെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് വീട്ടുകാരിൽ പലരും ജോലി ഈ സ്കോളർഷിപ്പുള്ളതുകൊണ്ട് പല പെണ്ണുങ്ങളൾ പഠിച്ചു പോകുന്നുണ്ട് പല ജോലികളിലും മുൻനിരയിൽ എത്താറുമുണ്ട് സാമ്പത്തിക പ്രസിസന്ധി അവർക്കിപ്പം നേരിടേണ്ടി വരത്തില്ല കാരണം ഈ സ്കോളർഷിപ്പുള്ളതുകൊണ്ട് പല വീട്ടിലും പല സാഹചര്യങ്ങളാണ് പഠിപ്പിക്കാൻ വിടാത്തത് അതുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു പലർക്കും കൂടുതൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പെൺകട്ടികൾക്ക് പ്രത്യേകിച്ച് തന്നിക്കുന്നത് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പല പദ്ധതികൾകൊണ്ട് അവർ ഒരു ഏജ് വച്ച് ഓരോ ക്ലാസ് വച്ച് ഓരോ പഠിത്തത്തിൻ്റെ അനുസരിച്ചാണ് അവർ പെൺകുട്ടികൾക്ക് ജോലിയിൻ്റെ ഇത് തന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾക്കും ഉണ്ട് പെൺകുട്ടികൾക്കും ഉണ്ട് പെൺകുട്ടികൾക്ക് പ്രത്യേകമുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും ഉണ്ട് അവർക്ക് ജോലി സാധ്യതയും എല്ലാം ചേർന്നുള്ള അവരുടെ അത്രത്തോളം പഠിക്കാം അത്രത്തോളം അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതുകൊണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഗുണമുള്ള കാര്യം കൂടിയണിത് അപ്പോൾ ഇവർക്ക് ഏതുവരെ പഠിക്കണം എന്തുവരെ പഠിക്കണം എന്നുള്ള ചിന്തയും നല്ലൊരു ലക്ഷ്യത്തിലെത്താനുള്ളൊരു ബോധവുംകൂടെ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്